എനിക്ക് ഏറ്റവും കൂടുതൽ കഴിക്കാൻ ഇഷ്ടമുള്ളത് നോൺ വെജ് കാര്യങ്ങളാണ് പിന്നെ അതുപോലെത്തന്നെ ബിരിയാണി കാര്യങ്ങളാണെങ്കിൽ തന്നെ അതിനോട് കുറച്ചും കൂടി ഒരു താത്പര്യം കൂടുതലാണ് കാരണം ബിരിയാണി അതിൻ്റെ മസാലയും കാര്യങ്ങളും പിന്നെ ഫ്രൈ ചെയ്ത ചിക്കനും കാര്യങ്ങളൊക്കെ ആവുമ്പം അതിൻറ്റൊരു കോമ്പിനേഷനും പിന്നെ അതിൻ്റെ കൂടെയുള്ള ഒരിതും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഇത് ഒരു ഇൻട്രെസ്റ്റുള്ളൊരു കാര്യമാണ് പിന്നെ നോൺ വെജിൽ ആണെന്നുണ്ടെങ്കിൽ അൽഫാം കാര്യങ്ങളും സ്പൈസി ആയിട്ടുള്ള അൽഫാമ്സും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് അട്ട്രാക്ടഡാണ് അങ്ങനെയുള്ള ഫുഡുകളും പിന്നെ നോൺ വെജ്ജായിട്ടുള്ളതും ബർഗേഴ്സ് കാര്യങ്ങളും ഷവർമ്മ അങ്ങനത്തെ ഐറ്റംസൊക്കെ കഴിക്കാൻ ഭയങ്കര അധികം ഇഷ്ടമുള്ള ഒരാളാണ് വെജ്ജിനോട് അത്ര താത്പര്യം കുറവും കാര്യങ്ങളൊക്കെയാണ് നോർമലി എനിക്കുള്ളത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെജ് ഐറ്റത്തിലുള്ള എല്ലാ ഐറ്റംസും ഞാൻ കഴിക്കാറില്ല പിന്നെ നോൺ വെജ്ജിലാണെങ്കിൽ തന്നെ എല്ലാ ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസും ഞൻ കഴിക്കാറുണ്ട് അപ്പോൾ അതു കൊണ്ടുതന്നെ അങ്ങനത്തെ ഫുഡ് കാര്യങ്ങൾ കഴിക്കുന്നതിനോടാണ് കൂടുതലും താത്പര്യവും കാര്യങ്ങളൊക്കെ വരുന്നത്